ഹലോ പറഞ്ഞോളൂ

ആ ചെയ്യാല്ലോ നിങ്ങളെത്ര പേരാണ് വരുന്നത് ആണോ എന്നാണ് വരുന്നത് ഡേറ്റൊന്നു പറയാമോ ആ ബുധനാഴ്ചയാണ് വരുന്നത് നിങ്ങൾക്ക് അവിടുന്ന് വാഹനസൗകര്യം എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇല്ല നിങ്ങൾ സ്വന്തം വാഹനത്തിലാണോ വരുന്നത്

ആ അതൊക്കെ നമ്മൾ അമ്പലത്തിൻറെ ദർശനം കഴിഞ്ഞിട്ടല്ലേ അക്കൊമൊഡേഷൻറെ കാര്യങ്ങൾ ഇപ്പം എവിടേലും നമ്മൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഒരുപാട് ഹിസ്റ്റോറിക്കൽ പ്ലേസ് എല്ലാം ഉണ്ട് അമ്പലങ്ങളുണ്ട് ഇപ്പം പദ്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ചു പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെത്തന്നെ ഏറ്റവും റിച്ചെസ്റ്റായിട്ടുള്ള ഒരു ടെമ്പിളാണ് പദ്മനാഭസ്വാമിക്ഷേത്രം അവിടെ നമ്മൾ സ്വർണ്ണത്തിലുള്ള വിഗ്രഹമാണ് അതായത് വിഷ്ണുദേവൻ്റെ പ്രതിഷ്ഠയെന്നു പറയുന്നത് സ്വർണ്ണത്തിലുള്ള വിഗ്രഹത്തിലുള്ള പ്രതിഷ്ഠയാണ് അത് തുറക്കുന്നത് മൂന്നു മൂന്ന് വാതിലാണ് നമ്മൾ ദർശനത്തിന് അതിപ്പം നല്ല തിരക്കായിരിക്കും എല്ലാ വാതിലും എല്ലാ ദിവസവും തുറക്കാറില്ല വിശേഷദിവസങ്ങളിൽ മാത്രമേ മൂന്നുവാതിലും തുറക്കാറുള്ളൂ ആ അങ്ങനെയുണ്ട് പിന്നെ നമ്മൾ ആറ്റുകാൽ അമ്പലമുണ്ട് ആറ്റുകാൽ അമ്പലത്തിൽ പോവുന്നുണ്ടോ താൽപ്പര്യമുണ്ട് ആ കാരണമെന്തെന്നുവെച്ചാൽ സ്ത്രീകളുടെ ശബരിമലയെന്നാണ് അറിയപ്പെടുന്നത് ആറ്റുകാൽ അമ്പലം അതേപോലെ പഴവങ്ങാടിയുണ്ട് പഴവങ്ങാടി ഗണപതിക്ഷേത്രമുണ്ട് ആ അപ്പം നിങ്ങളെത്ര ദിവസത്തേയ്ക്കുള്ള ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓക്കേ ഓക്കേ അപ്പം നിങ്ങളുടെ താമസസൗകര്യങ്ങൾ നമ്മളീ അമ്പലത്തിൽ പോവാൻ കണക്കാക്കി നമ്മൾ അതിനുള്ള സ അറേഞ്ച്മെൻറ് ചെയ്യാം ആ ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ബുധനാഴ്ച വന്നിട്ട് എന്നെയീ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽമതി ആ ഓക്കെ